എംപ്ലോയിസുകളെല്ലാവരും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് ഈ ട്രേഡ് യൂണിയാനസം ട്രേഡ് യൂണിയനിസം എന്ന് പറഞ്ഞത് ഈ കാർഷിക മേഖലയാണെങ്കിൽ അതിൽ അവരുടെ എല്ലാ അവരുടെ അവകാശങ്ങളെയും സംരക്ഷിക്കാനും അവരുടെ വേതനം അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനും അവരെ പ്രൊഡക്റ്റുകളുടെ ഉൽപാദനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വിതരണത്തെ സംബന്ധിച്ചുമുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ ഭേദഗതയിലുള്ള ബില്ലുകൾ പാസ് ആക്കാനും അവർക്ക് ഉപയോഗമാകുന്ന രീതിയിലുള്ള ലോണുകൾക്ക് ലോണുകൾ നൽകുന്നതിനും അവരുടെ സാഹചര്യങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ വർക്കിൻ്റെ സാഹചര്യങ്ങളും അറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകാനും ഒക്കെയുള്ളതാണ് ട്രേഡ് യൂണിയസം ഉള്ളത് പക്ഷേ അത് കാർഷിക മേഖലയ്ക്ക് ഉയർത്തുന്ന ഭീഷണി എന്ന് വെച്ചാൽ അത് കൃഷി ഈ ട്രേഡ് യൂണിയസം വരുമ്പോൾ കൃഷിക്ക് അത് അവരുടേതായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ കർഷകർക്ക് അത് വളരെ ക്ഷീണമാകും അവർ ഈ ഒരു വരുമാനം കൊണ്ടാണ് അവരുടെ ജീവിത മാർഗ്ഗം നോക്കുന്നത് അപ്പം ഈ ട്രേഡ് വികസനത്തിൻ്റെ വളരെയധികം പ്രചാരണം കാർഷിക മേഖലയ്ക്ക് ചിലപ്പോൾ ഭീഷണി ഉയർത്താറുണ്ട്